ഇവിടെ മലപ്പുറത്തങ്ങനെ കര്ഷകർ ആത്മഹത്യ പൊതുവേ കണ്ടിട്ടില്ല കുറേ പൈസ മുടക്കിയൊന്നും ആരും കൃഷിയൊന്നും ചെയ്യാറൊന്നുമില്ല പിന്നെ ചെയ്യാറൊന്നുമില്ലയെന്നു തോന്നുന്നു പിന്നെ ഞങ്ങൾ പത്രത്തിലാണ് ഇങ്ങനെയൊക്കെ കർഷകരുടെ ആത്മഹത്യേനെ കുറിച്ചൊക്കെ കേട്ടിട്ടുള്ളത് അതിൽ ഫോട്ടോ സഹിതമൊക്കെ ഇങ്ങനെ ഉണ്ടാകും അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ട് കേരളത്തിന്റെ തെക്കന് ജില്ലകളിലായ ആലപ്പുഴ ഇടുക്കി പത്തനംതിട്ട ഇവിടേ ഇവിടുന്നുള്ള വാര്ത്തകളിൽ പൊതുവെ കര്ഷകരുടെ ആത്മഹത്യ ഉണ്ടാകാറുള്ളത് അവർ അവർ ലോണൊക്കെ എടുത്തു ലോണൊക്കെ എടുത്ത് അടക്കാന് കഴിയാതെ വരുന്ന സമയത്തൊക്കെ അല്ലെങ്കിൽ പ്രകൃതിക്ഷോഭം മൂലം കൃഷിനാശം സംഭവിക്കുകയാണെങ്കിൽ നല്ല മഴയും കാറ്റുമൊക്കെ ആകുമ്പോൾ കൃഷിയൊക്കെ നഷ്ടം ആകുമല്ലോ അങ്ങനത്തെ അവസ്ഥയിലൊക്കെ കര്ഷകർ ആത്മഹത്യ ചെയ്യലുണ്ട് ആ തിരിച്ചാ പൈസ അടക്കാൻ കഴി ലോണിന്റെ പൈസ അടക്കാൻ കഴിയാത്ത അവസ്ഥയൊക്കെ ഉണ്ടാകുമ്പോളങ്ങനെയൊക്കെ കേൾക്കാറുണ്ട് ഈ അടുത്തായി രണ്ടു കർഷകരെ വന്യജീവികൾ പിടിച്ചു കൊണ്ട് ആക്രമിച്ചു മരിച്ച വാർത്തയും കേട്ടിട്ടുണ്ട് കര്ഷകരുടെ ആത്മഹത്യ കര്ഷകർ ആത്മഹത്യ ചെയ്തു മരണപ്പെട്ടാൽ അവരുടെ കുടുംബത്തിന് സര്ക്കാരിന്റെ വകയായിട്ടോ അല്ലെങ്കിൽ മറ്റാളുകളാരെങ്കിലും ഒക്കെ നല്ല ധനസഹായവും അല്ലെങ്കിൽ വീടൊക്കെ വെച്ചു കൊടുക്കൽ ഒക്കെ ആയിട്ട് അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്